നല്ല പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ ഹെയർ ഓയിൽ വാങ്ങിച്ചത് ഹെയർ ഓയിൽ പരസ്യത്തിൽ അവർ എന്താണ് നാച്ചുറൽ സാധനങ്ങളായ നെല്ലിക്ക അലോവേര തുളസി മൈലാഞ്ചി കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്താണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചത് എങ്കിലും ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിയത് തൊട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ കൂടുകയാണ് ചെയ്തത് മുടി പൊട്ടിപ്പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത് ദയവു ചെയ്ത് ആരും ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കരുത്